ഞാനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഓൺലൈനായിട്ടാ വാങ്ങിച്ചു തന്നെ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ കൈയ്യിൽ കിട്ടിയപ്പോഴേക്ക് അതിൻ്റെ കോലം ആകെ മാറിയിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രിൻറ്റഡ് ലെദർ ബാഗായിരുന്നു വിചാരിച്ചത് അത് കണ്ടിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ കിട്ടിയപ്പോഴേക്കും അതിൻ്റെ ആകെ പ്രിറ്റെല്ലാം കൂടെ പോന്നു സിബ്ബ് ഒറ്റ വലിക്ക് എല്ലാം കൂടെ പോന്നു കൈയ്യിൽ പോന്നു പിന്നെ അതിൻ്റെ സ്ലിംഗ് സ്ലിംഗ് ബാഗാ ബാഗായിരുന്നു ഒരു സുഖം കിട്ടിയില്ല ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു കളറൊന്നും അതേ അല്ല ആകെ പൊളിഞ്ഞ് അടിയൊക്കെ ആകെ കേടു വന്നിട്ടുണ്ടായിരുന്നു അത് അത്രയും ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതേ പോലെ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനമായിരുന്നു പക്ഷെ ഇതിപ്പോൾ അതിൽ ഒറ്റ സിബ്ബായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ കിട്ടിയപ്പഴേക്കിന് ആ സിബ്ബ് ഒന്നു രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതാകെ കേടു വന്നിട്ടുണ്ട് ഒന്നു യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് കൈയ്യിൽ കിട്ടിയത് അതിൻ്റെ ആകെ പൊട്ടി പൊളിഞ്ഞ് കുറച്ചു കുറച്ചു ചെറുതായിരുന്നു ഓഡറർ ചെയ്തപ്പോൾ പക്ഷെ കിട്ടിയപ്പോൾ അതു വലുതായിട്ടുണ്ട് ഭയങ്കര ബോറായിപ്പോയി കിട്ടി ഇനിയത് റിട്ടേൺ ചെയ്യേണ്ടിവരും ചിലപ്പം അത്